ചേട്ടാ ഞാനീ വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചു അത് ചേട്ടന് മാസ്ക് ഇട്ടിട്ടില്ല നമ്മൾ ഈ വണ്ടിയിൽ ഇത്രയധികം യാത്രക്കാരൊക്കെ സഞ്ചരിക്കുന്നതാണ് അപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ് ഇത്രയും ആള്ക്കാരെല്ലാം മാസ്ക് ധരിക്കുന്നുണ്ടെങ്കിൽ ചേട്ടനും മാസ്ക് ധരിക്കാം ഇപ്പോൾ വേറെ ഒന്നുമല്ല നമ്മുടെ ഇവിടെയെക്കെ എത്ര ഞങ്ങളുടെ അവിടെയൊക്കെയാണെങ്കിൽ ഒത്തിരി പേര്ക്ക് ഇപ്പം തന്നെ കൊറോണ വന്നു വീട്ടിൽ ഇരിക്കുന്നവര്ക്ക് പോലും കൊറോണ വന്നു വീട്ടിന് വെളിയിൽ ഇറങ്ങാത്തവര്ക്ക് പോലും കൊറോണ വന്നു ഒരുപാട് പേർ അത് അതിലൂടെ ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരുണ്ട് കൊച്ചുകുട്ടികളൊക്കെ ഉള്ളതാണ് എല്ലാ വീടുകളിലും അപ്പം നമ്മൾ പൊതുഗതാഗതം ആയതുകൊണ്ട് തന്നെ എല്ലാവരും മാസ്ക് ധരിക്കണം അപ്പം ഡ്രൈവർ ആയിട്ടുള്ള താങ്കൾ ധരിച്ചില്ലെങ്ങിൽ അതിൽ സഞ്ചരിക്കുന്ന പല ആളുകളും മാസ്ക് ഒക്കെ ധരിക്കാതെ കയറാനായിട്ട് സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് ചേട്ടൻ ഉറപ്പായിട്ടും മാസ്ക് ധരിക്കണം അല്ലെങ്കിൽ ഞങ്ങള്ക്കീ വണ്ടിയിൽ യാത്ര ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പം ഇത് തെറ്റായിട്ടൊന്നും എടുക്കരുത് ഇത്രയും കൊറോണ രൂക്ഷമായിട്ട് നിൽക്കുന്നത് കാരണമാണ് ഞാനിത് പറയുന്നത് ചേട്ടന് മാസ്ക് ധരിക്കണം മാസ്ക് ധരിക്കാതെ ഇരിക്കരുത്